ഇപ്പം കുട്ടികളുടെ സാങ്കേതിക പഠനമെന്ന് പറയുമ്പം നമ്മളെന്താ പറയുക ശാസ്ത്രപഠനവും ഇങ്ങനെ വിനോദകരമാക്കാം ഇപ്പം കുട്ടികൾ ഇപ്പം നടക്കുന്ന പല കാര്യങ്ങളും കുട്ടികൾ എന്നാ എന്താ പറയുക അഞ്ചു തൊട്ടുള്ള പിള്ളേർ വരെ മുട്ടയിൽ നിന്നു വിരിയുന്ന പിള്ളേർ വരെ ഇപ്പം എന്താ പറയുക വേറൊരു രീതിയിലോട്ടാണ് വളരുന്നത് ചെറിയ പെരിയ കുട്ടികൾ ഇപ്പം നല്ലതു പോലെ അത്യാവശ്യം നല്ല രീതിയിലാണ് സംസാരിക്കുകയും പറയുകയും എല്ലാവരും നല്ല പഠനം നടത്തുന്നത് ഇപ്പം അവർ കുറച്ചും കൂടി നല്ല വളരുമ്പോഴത്തേന് ശാസ്ത്രപരമായി അവർ നല്ലതു പോലെ പഠിക്കുകയും പഠനത്തിൽ മുൻതൂക്കം കിട്ടുക അവർക്ക് ലഭിക്കുന്നുണ്ട് അപ്പം കേരളം വളര് വളരുന്നതോടും കുട്ടികളുടെ പഠനവും മികച്ചതാകുന്നു മെയിനായിട്ട് ഇപ്പം പറയുകയാണെ കുട്ടികളെല്ലാം വളർന്ന് പ്ലസ് റ്റു കഴിയുമ്പോഴത്തേന് പുറത്തോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് ശ്രമിക്കുന്തോറും ഉയരങ്ങളിൽ എത്താമെന്നാണ് പറയുന്നത് അതു പോലെയാണ് കുട്ടികളുടെ സാങ്കേതിക വിദ്യാപഠനവും ശാസ്ത്രപഠനമെന്നു പറയുമ്പം എന്താ പറയുക ശാസ്ത്രമായിട്ട് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുകയും അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു